നമ്മുടെ ഭാഗത്ത് ഏറ്റവും കൂടുതല് കാണാൻ കഴിയുന്നത് ഇവിടെ കാണാൻ കഴിയുന്ന ആദിവാസി കുടുംബത്തെ കാണാൻ കഴിയുന്നത് നമുക്ക് ഇവിടെ ഇരളത്താണ് ഇരളത്താണ് അവരുടെ കുറെ കൂട്ട് ഉള്ളത് കൂട്ട് ഉള്ളത് അവരുടെ കാര്യം പറയുകയാണെങ്കില് അവര്

പിന്നെ അവരുടെ പിള്ളേരെ മക്കളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസത്തിലേക്ക് തീരെ താന്നു നിൽക്കുന്ന ഒരു ഇതാണ് ഇവരെന്ന് പറയുന്നത് ഗോത്ര വിഭാഗം എന്ന് പറയുന്നത് അതിൽ സർക്കാര് കുറെ സഹായങ്ങൾ എല്ലാം അവർക്ക് ചെയ്ത് കൊടുക്കുന്നു ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അവരതൊന്നും ഉപയോഗിക്കാണ്ട് ദുരുപയോഗം ചെയ്ത് പഠിക്കാണ്ടാവുകയാണ് ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ ജോലി ചെയ്യണം അടക്ക പറിക്കല് അങ്ങനെ ഉള്ള ജോലികളിലേക്ക് മാറണം എന്നാണ് അവർക്ക് താല്പര്യം അവരതിലേക്ക് പെട്ടെന്ന് മാറുന്നു പഠിത്തത്തിലാണെങ്കിലും ശ്രദ്ധ കൊടുക്കാണ്ടിരിക്കുക അതാണ് അവരുടെ മുഖ്യ പ്രശ്നം